എനിക്ക് നേരിട്ട് കാണണമെന്ന് ഒരു തവണ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു പാട്ടുകാരാണെന്ന് വെച്ചാൽ നമ്മുടെ യേശുദാസും ചിത്രച്ചേച്ചിയുമാണ് രണ്ടുപേരും കാരണം രണ്ടുപേരും എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റോം ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ചിത്ര ആയാലും യേശുദാസായാലും ഇവരുടെ പണ്ടത്തെ പാട്ടുകളെന്നും ഇപ്പോഴും രണ്ടുപേരും ഹിറ്റ് ആയിട്ടുണ്ട് ഞാൻ അത്യാവശ്യം പാട്ടുപാടുമെന്നുള്ളതുകൊണ്ട് എനിക്ക് ഇവർ രണ്ടുപേരും പാടുമെന്നെനിക്കറിയാം അപ്പോൾ ഞാനിവരുടെ പാട്ടുകളൊക്കെ കേൾക്കും എനിക്കിവരുടെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും സ്റ്റിൽ ടു മൈ ഹാർട്ട് എന്നും അതെന്നും ഉണ്ടാവും ചിത്ര ആയാലും ചിത്രേടെ ചില ചിത്രചേച്ചിടെ കുറച്ചു കാര്യങ്ങളുണ്ട് ഞാനെപ്പോഴും ചൂ എപ്പോഴും ഞാൻ ഫോളോ ചെയ്യാറ് പാട്ട് പാടുമ്പോഴും അല്ലെങ്കിൽ പാട്ട് പഠിക്കുമ്പോഴും അതെങ്ങനെയാണ് പഠിക്കണേന്നും എങ്ങനെ ഏത് രീതിയിലാണ് നമ്മുടെ മൈൻഡിലേക്ക് അത് എത്തിക്കേണ്ടതെന്നും കൃത്യമായിട്ട് ചിത്രച്ചേച്ചിക്ക് അറിയാം അപ്പോൾ ചേച്ചി എന്നെ ഹെൽപ്പ് അപ്പോ ചേച്ചി എന്നെ എപ്പോഴും ഹെല്പ് ചെയ്യാറുണ്ട് ഐ ആം എ ഗ്രേറ്റ് ഫാൻ ഓഫ് ഹർ അതുപോലെ യേശുദാസ് സാറും രണ്ടുപേരും എന്തോരം പാട്ടാണ് എന്തോരം ഉണ്ട് നല്ല വൃത്തിക്ക് ആണ് പാടുക എന്ന് നമുക്കെല്ലാവർക്കും അറിയാം മലയാളത്തിൽ തന്നെ ഏറ്റോം നല്ല അടിപൊളിയായിട്ട് പാട്ടുപാടി ഇനി വരാനില്ല ഇപ്പോൾ ഇത്രയും വയസായാലും ഒരു പക്ഷേ ഇവരെ കടത്തിവെട്ടാൻ ഇനി വേറെ ആൾക്കാരുണ്ടോ എന്നെനിക്ക് അറിയില്ല പണ്ടത്തെ അല്ലേ നമുക്കറിയാം ഇവരുടെ പാട്ട് എങ്ങനെ ആണെന്ന് എങ്ങനെ ആണെന്നും ഏതാണെന്നും ഇനീപ്പം എങ്ങനൊക്കെയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അത് അറിയാം അപ്പം ഞാനതിനെപ്പറ്റി കൂടുതലായിട്ട് പറയേണ്ട ഒരു ആവശ്യവുമില്ല നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ അതാണെനിക്കിപ്പോഴും പറയാനുള്ളത്